മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള ചില സാങ്കേതികവിദ്യകൾ പലതും ഉണ്ട് അവയുടെ അന്തിമ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൃഗങ്ങളെ അറക്കുന്നതും കശാപ്പ് മുതലായവ ഒരു മൃഗത്തെ വാങ്ങുന്നതു മുതൽ ഒടുവിൽ പണം സമ്പാദി ആയിട്ടുള്ള മുഴുവൻ പ്രക്രിയയും പല രീതിയിലുള്ള പ്രക്രിയകൾ ഉണ്ട് ഒരു മൃഗത്തെ വാങ്ങുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ ഫാമുകൾ ഫാമുകളിൽ ഒരുമിച്ചു വളർത്തുന്ന മൃഗങ്ങളെയൊക്കെയാണ് ആളുകൾ വാങ്ങുന്നത് അപ്പം പശുക്കളെക്കെ ആണെങ്കിൽ പാലിനുവേണ്ടി പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടി പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടി പശുക്കളെ വളർത്തുന്നു പിന്നെ കൂടാതെ ഇറച്ചിക്ക് വേണ്ടിയിട്ടും പശുക്കളെ വളർത്തുന്നുണ്ട് പാൽ വിറ്റ് ആളുകൾ പണം സമ്പാദിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇറച്ചി വിറ്റും ആണെങ്കിൽ പിന്നെ കൂടാതെ ചാണകം കൊടുത്തൊക്കെ ആണെങ്കിൽ ആളുകൾ പണം സമ്പാദിക്കുന്നു എന്നുവച്ചാൽ പശുവിൻ്റെ ചാണകം വച്ച് കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് ആളുകൾ അത് വേടിക്കുന്നു ഇച്ചി ഒക്കെ ഭക്ഷണ ഭക്ഷ്യയോഗ്യമായതുകൊണ്ട് ഇറച്ചി ഒക്കെ വേടിക്കുന്നു അങ്ങനെ വിൽക്കുന്നു അങ്ങനെ അങ്ങനെ വളർത്തി വിൽക്കുന്നു എന്ന് പറയുമ്പം അങ്ങനെ പണം പണം സമ്പാദിക്കുന്നു ഫാമുകളിൽ വളർത്തിക്കുന്ന ആ രീതിയിൽ പണം സമ്പാദിക്കുന്നു കശാപ്പ് രീതിയിൽ ഇറച്ചി മേടിച്ച് പശുക്കളെ മൃഗങ്ങളുടെ മേടിച്ച് അല്ലെങ്കിൽ മൃഗങ്ങൾ പോത്ത് തുടങ്ങിയ ആട് തുടങ്ങി മൃഗങ്ങളെയൊക്കെ മേടിച്ച് അതിനെ കശാപ്പ് ചെയ്ത് കൊടുക്കുന്നവർ അങ്ങനെ ആ രീതിയിൽ പണം സമ്പാദിക്കുന്നു ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ പറയുന്നത് എപ്പഴും പാലുൽപ്പന്നമാണ് അതിൻ്റെ ചാണക ഉൽപ്പന്നമാണ് പിന്നെ അതിൻ്റെ ഇറച്ചി ഉൽപ്പന്നമാണ് ഈ ഉൽപന്നങ്ങൾ ഇവയൊക്കെ അന്തിമ ഉൽപ്പന്നത്തിന് കൂടുതൽ പാൽ അത്ര അത്രത്തോളം ബാധിക്കുന്നില്ല